ഏതൊക്കെ പുതിയ സംരംഭങ്ങളാണ് നിങ്ങളുടെ പ്രദേശത്ത് ആരംഭിക്കാവുന്നത് എന്ന് നിങ്ങളെന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ കുറച്ച് ഉത്തരങ്ങളുണ്ട് ഒന്ന് ഫാൻസി കട ഒന്ന് ബ്യൂട്ടി പാർലർ മറ്റൊന്ന് ചെരുപ്പ് കട മറ്റൊന്ന് ബാർബർ സലൂൺ ഇതൊക്കെ ഞാൻ പറയാനുണ്ടായ കാരണങ്ങളെന്താന്ന് വെച്ചാൽ ഇതിനൊന്നൊര് പെട്ടന്ന് ആക്സസ് ഞങ്ങളുടെ നാട്ടിലില്ല ഉണ്ട് പക്ഷെ ഒര് രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും പക്ഷെ ഒരഞ്ചുമിനിറ്റ്ല് ഞങ്ങൾക്കെത്തിപ്പെടാവുന്ന ദൂരത്തിൽ ഇതെല്ലാം അവെവൈലബിളാണെന്നുണ്ടെങ്കിൽ നല്ല കച്ചവടം അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഫാൻസികളിൽ നല്ല കച്ചവടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്നോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ബ്യൂട്ടീ പാർലർ തുടങ്ങാൻ താൽപര്യമുണ്ടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊരു ബ്യൂട്ടീപ്പാർളറിട്ടാൽ നല്ല കച്ചവടം ഉണ്ടാകാൻ ചാൻസ്സുണ്ട് കാരണം കൂടുതൽ പെൺകുട്ടികളുള്ള ഏരിയ ആണ് ഇത് അതുകൊണ്ട് തന്നെ ഫാൻസീ സ്റ്റോറിനും ബ്യൂട്ടീ പാർലറിലും നല്ല കച്ചവടം കിട്ടാന് സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനാരംഭിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ബ്യൂട്ടീപാർളറൊ അല്ലങ്കിൽ ഒരു ഫാൻസീ സ്റ്റോറോ തുടങ്ങാനാഗ്രഹിക്കും നിങ്ങളോട് സജസ്റ്റെയ്യുകയാണെങ്കിൽ ഞാൻ ബാർബർ സലൂൺ ഇടാൻ പറയും അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിടാൻ പറയും പെട്ടെന്നൊര് വർക്ക്ഷോപ്പ് ഞങ്ങളുടെ നാട്ടിൽ പോയിക്കഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പ് ഇടാൻ ഞാൻ സജെസ്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു വസത്രക്കട ഇടാൻ ഞാൻ സജെസ്ട് ചെയ്യും ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ബ്യൂട്ടീപ്പാർലറായിരിക്കും തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഫാൻസീസ്റ്റോറായിരിക്കും തുടങ്ങുക ബ്യൂട്ടീപ്പാർളർ എന്ന് പറയാൻ കാരണം എനിക്ക് പണ്ട് മൊതലേ ബ്യൂട്ടീഷനാവാൻ ഇഷ്ടമാണ് എനിക്ക് ബ്യൂട്ടീ പ്രൊഡക്റ്റ്സിനോടും ബ്യൂട്ടീ ടിപ്സിനോടും എനിക്കിഷ്ടമാണ്